എനിക്ക് പോകാനായിട്ട് കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലവും രാജ്യം തന്നെ പേരിസ് ആണ് കാരണം എനിക്ക് സിനിമകളിൽ ഒക്കെ കാണുന്ന അവിടുത്തെ ഓരോ സ്ഥലങ്ങളും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് പേരിസിൽ ഒക്കെ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഒത്തിരി വട്ടം നമ്മളിങ്ങനെ ഒരു ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അവിടെ പോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവിടെ ഉള്ള ഓരോ ടൗണുകളും ഓരോ സ്ഥലങ്ങളും എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യാൻ ഒക്കെ ഒത്തിരി ആഗ്രഹമാണ് എന്നാൽ ഒരു അവസരം കിട്ടിയാൽ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഞാൻ ഒരു രാജ്യത്ത് പോവുകയാണെങ്കിൽ അത് പേരിസ് ആയിരിക്കും പിന്നെ എനിക്ക് താത്പര്യം ഉള്ള യു കെക്ക് പോകാനാണ് യു കെക്ക് പോകാൻ നമ്മുടെ നാട്ടിൽ ഉള്ള പോലത്തെ തണുപ്പും ആ ഒരു കാലാവസ്ഥയും നമ്മുടെ ഇപ്പം താമസിക്കുന്നിടത്ത് കാലാവസ്ഥയും വേറെ ഒരു സ്ഥലത്ത് ഉള്ള ഒരു കാലാവസ്ഥയും മാറി വരുമ്പോൾ ഉള്ള ആ ഒരു വൈബ് ഒക്കെ കിട്ടാൻ വേണ്ടി ഈ രണ്ട് രാജ്യങ്ങളിൽ ഒക്കെ പോകാൻ ഭയങ്കര ആഹ്രഗമുള്ള കാര്യമാണ് അതാണ് എൻ്റെ ഇത്